ഞാൻ ഒരു വസ്ത്രം ചെറുതാണെന്ന് പറഞ്ഞ് റിട്ടേൺ ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇതുവരെ ആയിട്ടും എനിക്ക് അതിൻ്റെ സ്റ്റാറ്റസൊന്നും അറിയാൻ പറ്റുന്നില്ല അപ്പം നിങ്ങളുടെ ഇതിനെക്കുറിച്ച് ഉള്ളൊരപ്ഡേറ്റും നിങ്ങടാപ്പിലും കാണുന്നില്ല എനിക്ക് മെയ്ലായ്ട്ടും വന്നിട്ടില്ല ഞാൻ ഇതിൻ്റെ വിവരങ്ങൾ അറിയാൻ വേണ്ടി വിളിച്ചതായിരുന്നു ഞാനീ കാണിക്കുന്ന ഈ മെസ്സേജെന്ന് പറഞ്ഞാൽ എനിക്ക് ഇതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ് എത്രയും പെട്ടന്ന് തന്നെ നൽകേണ്ടതാണ് ഒന്നെല്ലങ്കിൽ നിങ്ങൾ ഇതെനിക്ക് റീപ്ലേസ് ചെയ്ത് ഇതിൻ്റെ ലാർജ് സൈസ് സാധനം തരേണ്ടതാണ് ഞാൻ ഓഡ്രെ ചെയ്തത് ഇല്ലെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഫുൾ ക്യാഷ് റീഫണ്ട് എനിക്ക് നൽകേണ്ടത് ആണ് ഇനിയും ഇത് വൈകി കഴിഞ്ഞാൽ ഞാൻ ഉപഭോക്തൃ കോടതിയിൽ പോയി കേസ് കൊടുക്കുന്നത് ആയിരിക്കും പിന്നെ നമ്മൾ ഈ രീതിയിൽ ഒന്നും ആയിരിക്കത്തില്ല സംസാരിക്കാനും പോകുന്നത്